പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള നൃത്ത രൂപങ്ങൾ എന്ന് പറയുന്നത് ഭരതനാട്ട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അതുപോലെ തന്നെ നാടൻ പാട്ടുകൾക്ക് ചുവട് വെക്കുക തിരുവാതിര മാർഗംകളി അങ്ങനെയുള്ള കലാരൂപങ്ങളാണ് നമുക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നത് ഇപ്പോള് പുറത്തുനിന്നുള്ള സ്വാധീനം അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൃത്തത്തിനോട് പൊതുവെ പാരമ്പര്യ നൃത്തത്തിനോടുള്ള ഒരു താൽപര്യം ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോള് ഒരു പശ്ചാത്യ ഒരു അഭിനിവേശം എന്ന് തന്നെ പറയേണ്ടിവരും അപ്പോള് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ള തരം ഡാൻസുകളിപ്പോള് ഹിപ്ഹോപ്പ് ഫ്രീ സ്റ്റൈൽ അതുപോലെ ടാങ്കൊ അങ്ങനൊരുപാട് പല തരത്തിലുള്ള നൃത്ത രൂപങ്ങളുണ്ട് പുറം പുറം രാജ്യങ്ങളില് അതിനോടൊക്കെ കുട്ടികൾക്ക് അല്ലെങ്കില് യുവതലമുറയ്ക്ക് കൂടുതലായിട്ടുള്ളൊരു താല്പര്യം ഇപ്പോള് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഹിപ്ഹോപ്പിനോടൊക്കെ ഒരുപാട് കുട്ടികൾക്ക് താല്പര്യമുണ്ട് ഇപ്പോള് ഇപ്പോള് നമ്മൾക്ക് എന്താണു പറയുക ഈ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒരുപാട് വികസിച്ചതുകൊണ്ട് നമുക്കേതു നാട്ടിലെ കലാരൂപം വേണമെങ്കിലും നമുക്ക് യൂ റ്റൂബിലും മറ്റുമൊക്കെ കാണാന് പറ്റും അപ്പോള് അങ്ങനെ കണ്ട്